സോ എനിക്കൊരു ഡോഗ് ഉണ്ട് പേര് ജൂണോ എന്നാണ് നമ്മൾ നമ്മളെ ഫാമിലിയിലെ ഒരു മെമ്പറിനെപ്പോലെ തന്നെയാണ് നമ്മള് ആ ഡോഗിനെയും കാണണത് സോ ഇത് നമ്മളെ എന്നോടുള്ള സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഭയങ്കര കണക്ടെഡ് ആണ് ആ ഡോഗ് വീട്ടിലുള്ള ആരെക്കാളും കൂടുതൽ എന്നോടാണ് ഭയങ്കര സ്നേഹം കാണിക്കുക കാരണം ഞാനാണ് അതിന് ഫുഡും കാര്യങ്ങളും കൊടുക്കണതും അതിൻ്റെ കാര്യങ്ങൾ ബാക്കി നോക്കണതും എല്ലാം ഞാൻ ആയതുകൊണ്ട് തന്നെ ഒരു മുൻതൂക്കം സ്നേഹം എന്നോട് കൂടുതൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്

കാരണം എൻ്റെ വണ്ടിയുടെ സൗണ്ട് പോലും അവന് കേട്ട് കേട്ട് പരിചയമാണ് സോ അത്രയ്ക്കും ഒരു കണക്ഷൻ ഞങ്ങൾ രണ്ടായാളുടേയും ഇടയ്ക്കുണ്ട് അതുപോലെത്തന്നെ എൻ്റെ സൗണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും സോ അത്രയും ആ ഒരു റിലേഷൻ കണക്ഷൻ ഞാനും എൻ്റെ ഡോഗുമായിട്ട് പാലിച്ചു പോകുന്നുണ്ട്